ഒന്ന് അഞ്ച് രണ്ടായിരം ഓ പിന്നെ പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിമൂന്ന് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി